ക്യാബ് ഡ്രൈവറല്ലേ നമ്മൾ പിന്നെ ബാംഗ്ളൂരിന്ന് കോഴിക്കോടിലേക്ക് വരുന്നുണ്ട് നാളെ അപ്പോൾ നമുക്ക് അവിടെ ഏതെങ്കിലും ക്യാബ് ഒന്ന് ഫ്രീ ആയിട്ടുണ്ടോ നമ്മൾ ആറ് പേർ ആ ട്വൽവ് സീറ്റർൻ്റെ മതി അപ്പം പിന്നെ

നമുക്ക് എർട്ടിഗ മതി പിന്നേന്ന് ആണല്ലേ നമുക്ക് അതായത് പിന്നെ കിലോമീറ്ററിന് അനുസരിച്ചും നമുക്ക് റേറ്റ് കൂടില്ലേ നമുക്ക് കോഴിക്കോട് ഫുള്ളൊന്ന് ചുറ്റി കാണാൻ വേണ്ടിയായിരുന്നു

നമുക്ക് കോഴിക്കോടൊക്കെയൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയായിരുന്നു ആണല്ലേ അപ്പോൾ നമുക്ക് ഫുഡു താമസവും ഒക്കെ നിങ്ങൾ റെഡിയാക്കി തരണം നമുക്ക് അവിടുത്തെ വലിയ പിടുത്തമൊന്നും ഇല്ല വിശ്വഭാരായിൽ നമുക്ക് നല്ല നല്ല അതായത് അടിപൊളി ഫുഡ് സ്പോട്ടൊക്കെയുണ്ടെല്ലോ കോഴിക്കോടായതുകൊണ്ട് അപ്പം നമുക്ക് അവിടെയൊക്കെയൊന്ന് പിന്നെ ഫുഡൊക്കെ കഴിക്കാൻ കൊണ്ടുപോണം പിന്നേന്നു വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല സെറ്റപ്പ് ആയിട്ടുള്ളയൊരു പിന്നെ സ്റ്റേ തന്നെ വേണം ഇപ്പം അതിനുള്ള നിങ്ങൾ തന്നെ റെഡിയാക്കി തരണം അപ്പം നമ്മൾ വരുന്നത് നാളെ വൈകുന്നേരം നമ്മളവിടെയെത്തും അപ്പം നിങ്ങൾ അവിടെ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വരണം ഞങ്ങൾ ട്രെയിനിലാണ് വരുന്നത് അപ്പോൾ പിക്ക് ചെയ്യാൻ വരണം പിന്നെ ഞങ്ങൾക്ക് നാളെ വൈകുന്നേരം ഞങ്ങളൊന്ന് ഫ്രഷ് ആപ്പ് ആയിട്ട് മറ്റന്നാൾ തൊട്ട് നമ്മൾ കറങ്ങാനായിട്ട് ഇറങ്ങുവുള്ളു അപ്പം നിങ്ങൾ അതും കൂടൊന്ന് നിങ്ങളാദ്യമൊന്ന് നോക്കി നോക്കണം നമ്മൾ അതായത് പിന്നെ സ്റ്റേയും കാര്യങ്ങളൊക്കെ ആ ഓക്കെ എന്നാൽ ഞാൻ നാളെ അവിടെയെത്തുമ്പോൾ ഞാൻ എന്തായാലും വിളിക്കാം അപ്പോൾ നിങ്ങൾ എത്തുമ്പാല്ലാ എത്തുന്നേനൊരു അര മണിക്കൂർ മുന്നേ വിളിക്കാം അപ്പം നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാവില്ലേ ആ ഓക്കെ താങ്ക് യൂ